ആ അതെ അതെയോ എന്താണ് പച്ചക്കറി ഏത് പച്ചക്കറി എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് ഉണ്ട് ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് ഇപ്പോൾ ആ നിങ്ങൾ എത്ര വേണ്ടതെന്ന് വെച്ചെങ്കിൽ നമ്മൾ അത് പിന്നെ എടുത്തിട്ട് പാക്ക് ആക്കിയിട്ട് വയ്ക്കാം റേറ്റ് ഇപ്പം നിങ്ങൾക്ക് ഏത് പച്ചക്കറിയാണ് വേണ്ടതിപ്പം ആ ആ നിങ്ങൾ ഹോൾസെയിൽ ആയിട്ട് കുറച്ച് അധികം എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തും അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാം ഏത് എന്താണ് നിങ്ങൾക്ക് വേണ്ട പച്ചക്കറി ഇപ്പോൾ എല്ലാം വേണോ അല്ല

ആ ഓർഡർ നിങ്ങൾ തന്നെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് അത് എല്ലാം സെറ്റ് ആക്കിയിട്ട് വയ്ക്കാം നിങ്ങൾക്ക് എപ്പോളേക്ക് വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ അറിയാവുന്നതൊക്കെ ഏത് പച്ചക്കറിയിൽ ഏത് ഐറ്റംസ് ആണ് ഉള്ളത് തക്കാളിയാണോ അല്ല വേറെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ എല്ലാം നല്ല ഫ്രഷ് സാധനമാണ് നിങ്ങൾക്ക് എപ്പോളേക്കാണ് വേണ്ടത് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ച് കൊണ്ടാക്കും

ഇരുവത് ഗ്രാം തക്കാളിയാ

ആ അത് നമ്മൾ എടുത്തിട്ട് പിന്നെ നിങ്ങൾ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ അപ്പോളേക്ക് നല്ല ഫ്രഷ് തക്കാളി എടുത്തിട്ട് പാക്ക് ആക്കിയിട്ട് വയ്ക്കാം നിങ്ങൾ ആ സമയം ആവുമ്പോളേക്ക് വന്നാൽ മതി ആ മതി മതി മതി തക്കാളിക്ക് ഇപ്പോൾ കിലോയ്ക്ക് ഒരു ഒരു വിലയുണ്ട് ഇപ്പോൾ അടുത്തയാഴ്ച്ച ആവുമ്പോളത്തേക്ക് അതിപ്പം മാറുവോ എന്ന് അറിയില്ല ഓക്കെ ശരി ഓക്കെ